ചേട്ടാ ഈ റോഡ് നിർമാണം ഇതിപ്പോൾ എന്ന് തുടങ്ങിയതാണ് ഒത്തിരി ദിവസായോ തുടങ്ങിട്ട് ഇതിപ്പോൾ നമ്മളീ പണിയില്ലായിരുന്നുന്നുണ്ടെങ്കിൽ നേരെ പോവാന്നുണ്ടെങ്കിൽ നമ്മളൊരു അര മണിക്കൂർ നേരത്തെ ചെല്ലത്തില്ലായിരുന്നോ ഇതിപ്പം ലൊക്കേഷനിൽ എത്താൻ താമസിക്കുല്ലോ ഇത് ഈ വഴി കറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കോ നമ്മൾ ചെല്ലാനായിട്ട് ഇത് കുറച്ച് ദിവസായതാണോ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇതറിഞ്ഞില്ല അറിയുവായിരുന്നുന്നുണ്ടങ്കിൽ കുറച്ചൂടെ നേരത്തെ ഇറങ്ങാവായിരുന്നു ഇതിപ്പോൾ ഒരുപാട് നമ്മൾ താമസിച്ചായിരിക്കുമല്ലേ ചെല്ലുന്നത് ഒരുപാട് സമയമെടുക്കായിരിക്കും ചെല്ലുമ്പോൾ അല്ലേ ഏകദേശം നമ്മൾ അര മണിക്കൂർ ഓളം താമസം വരുമോ നമുക്കിത് നമ്മൾ എത്തിച്ചേരാനായിട്ടേ ഒരുപാട് താമസിച്ചാൽ നമുക്ക് ലൊക്കേഷനിൽ എത്താൻ പറ്റത്തില്ല അന്നേരം ഒരുപാട് സമയം എടുക്കും അതെങ്ങനെയാണ് ഒന്നറിയുന്നേ ഇതിലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റുണ്ടോ പോകാനായിട്ട് നേരത്തെ എത്തണമായിരുന്നു നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു അന്നേരം ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഒരുപാട് സമയമെടുക്കോ നമ്മൾ ചെല്ലുമ്പോഴ്ത്തേനും